സ്കൂളുകളിൽ ആദ്യമേ പഠിപ്പിക്കേണ്ട കാര്യം നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹം അതുപോലെത്തന്നെ മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കാം അവരെ എങ്ങനെ അനുസരിക്കാം പിന്നെ നമ്മുടെ സഹ ജീവികളെ അതായത് കൂട്ടുകാരുമായിട്ട് എങ്ങനെയൊക്കെ ഒന്നിച്ച് പെരുമാറാം പിന്നെ അപ്പം അതുപോലെത്തന്നെ കുട്ടികൾക്ക് പരസ്പരമുള്ള സ്നേഹം വേണം അക്രമവാസനകളൊന്നും ഉണ്ടാകാതെ അവർ പരസ്പരം സ്നേഹിച്ച് സന്തോഷമായിട്ടും ഒരേ കുടുംബത്തിലെ മക്കളെ പോലെ ഒരു സ്കൂളിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ വേണം അവരെ പഠിപ്പിക്കാനായിട്ട് പിന്നെ ഒന്നിച്ച് ഇല്ലാത്തവർക്ക് എല്ലാ കൂട്ടുകാർക്കാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും കാണും അതുപോലെത്തന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ ഉള്ള സാമ്പത്തിക സ്ഥിതിയിൽനിന്ന് വരുന്നവരായിരിക്കില്ല ഇപ്പോൾ നമുക്ക് കൂട്ടുകാർക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ളപ്പോൾ ഉള്ളവർക്ക് കൂട്ടുകാർ മക്കളെ അല്ല കൂടെ ഉള്ളവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരായിരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുന്നില്ലായിരിക്കും ഇപ്പോൾ സ്കൂൾ വഴിയൊക്കെ പിന്നെ ഉച്ചക്കഞ്ഞിയൊക്കെ ഉള്ള കാരണം അതൊക്കെ പരിഹരിച്ച് പൊയ്ക്കൊള്ളും അല്ലെങ്കിൽ തന്നെ ഇപ്പം വീട്ടിൽ വീട്ടിലവരുടെ വീട്ടിലെ അമ്മയ്ക്കോ അപ്പനോ ഒക്കെ അസുഖമാണോ എന്തെങ്കിലും പട്ടിണിയാണോ എന്നൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്ന് ചേർന്ന് അവർ അധ്യാപകരുടെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ കുട്ടികളെ ചെറുപ്പം തൊട്ടെ പഠിപ്പിച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹം അത് പ്രധാനമാണ് പിന്നെ എല്ലാവരെയും എല്ലാ അന്യ മതസ്ഥരെയും എല്ലാവരെയും ഒരേ പോലെ കാണാനായിട്ട് നമ്മുടെ സ്വന്തം മതത്തിലുള്ളവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റു മതക്കാരുടെ വിശ്വാസങ്ങളെ മാനിക്കാനും അവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ അതായത് അവരെ ഒരിക്കലും അവരുടെ മതവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞോ കളിയാക്കിയോ ഒന്നും ജീവിക്കാതെ എല്ലാവരും ഒരേപോലെ ജീവിക്കാനുള്ള ഒരു മനസ്സ് ഒരു ഒരു മനസ്സ് അവർക്ക് പിള്ളേരിൽ കുട്ടികളെല്ലാവരിലും വളർത്തിക്കൊണ്ട് വരണം അങ്ങനെയാകുമ്പോഴത്തേനും വർഗീയതയും പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുകളും ഒന്നുമില്ലാതെ ഒരേ മക്കളായിട്ട് ഒരേ ഒരു സ്കൂളിലെ കുട്ടികൾ ഒരേ അമ്മ അമ്മയുടെ മക്കളെ പോലെ വളർന്ന് വരാൻ അവർക്ക് സാധിക്കും പിന്നെ സ്കൂളുകൾ ഇല്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞ് പല സ്കൂളുകളിലും പിള്ളേർക്ക് ആവശ്യത്തിനുള്ള അല്ല പിന്നെ വിനോദത്തിനൊക്കെയുള്ള ഗ്രൗണ്ടുകൾ അങ്ങനെയൊക്കെ ഇല്ലാതെ വരും പിന്നെ പിള്ളേർക്ക് ശുചിമുറികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആരോഗ്യപരമായ ശുചിത്വ ശീലങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകളൊക്കെ കാണും ഇപ്പം ഒരുമാതിരി എല്ലാ സ്കൂൾ വഴിയും ഉണ്ട് അതില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ പരിഹരിക്കേണ്ടതാണ് പിന്നെ സ്കൂള് വഴി ഇല്ലാത്തതായ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ പി ടി എ പി ടി എ യുടെ ഇത് കാര്യങ്ങളൊക്കെ എല്ലാ മാതാപിതാക്കളുമായിട്ടും അധ്യാപകർ ഒരു കോൺടാക്ട് ചെയ്യണം എപ്പോഴും അവരുമായിട്ട് സംസാരിച്ചും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കണം പിള്ളേരുടെ പിള്ളേർക്ക് ഓരോ കുട്ടികളെയും ഓരോ വ്യക്തികളായിട്ട് കണ്ട് അവരലിള്ള കുറവുകളും കുറ്റങ്ങളുമൊക്കെ കണ്ടുപിടിച്ച് അവരുടെ മാതാ മാതാപിതാക്കളെ സമയാ സമയം ഇൻഫോം ചെയ്യണം പിന്നെ അവരിലുള്ള നല്ല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് കൊടുക്കണം അവർ എല്ലാവ അവരിലുള്ള കലകളും കഴിവുകളും ഒക്കെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാനൊക്കെ മാതാപിതാക്കൾക്ക് പറ്റുന്ന പോലൊക്കെ ഇൻഫോർമേഷനൊക്കെ മാതാപിതാക്കൾക്ക് കൊടുക്കണം അതൊക്കെ പല സ്കൂളുകളിലും ഇല്ലായെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പിള്ളേർ കുറച്ച് സമയം വരുന്നു പഠിക്കുന്നു കാര്യങ്ങളൊക്കെ കഴിയുന്നു പോകുന്നു പിന്നെ അതിൽ കൂടുതലായിട്ട് പലപ്പോഴും ഇപ്പം ഈ കുട്ടികളെ അടുത്തറിയാനൊക്കെ ടീച്ചേഴ്സിന് സാധിക്കുന്നുണ്ടോ എന്ന് കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതാണ് പിന്നെ സ്കൂളുകൾ എല്ലാവരും നന്നായിട്ട് ഒന്നിച്ച് ജീവിക്കുക